എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു മലയാളി എഴുത്തുകാരനെന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടാണ് കാരണം ചെറുപ്പം തൊട്ടേ നമ്മൾ വായിച്ചു വളർന്നിട്ടുള്ള സഞ്ചാരത്തിൽ നമുക്ക് ഇത്രയധികം ഒരു താൽപര്യം വളർത്താനായിട്ട് അദ്ദേഹത്തിന്റെ കൃതികൾക്ക് സാധിച്ചിട്ടുണ്ട് സഞ്ചാര സാഹിത്യമാണ് അദ്ദേഹത്തിന്റെ ഒട്ടു മിക്ക കൃതികളിലും ഉണ്ടായിരിക്കുക അപ്പോൾ ചെറുപ്പകാലം തൊട്ട് തന്നെ ഒരു ഈജിപ്തിനെ പറ്റിയിട്ടും നൈല് നദീനെ പറ്റിയിട്ടും ഒക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ വായനയിലൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു കൃതിയില് നിന്നെല്ലാം നമുക്ക് ചെറുപ്പം തൊട്ടേ അതെ നമുക്കത് വായിക്കുമ്പം തന്നെ ആ നാടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് എസ് കെ പൊറ്റക്കാടാണ് അദ്ദേഹത്തിന്റെ പലതരത്തിലുള്ള കാപ്പിരികളുടെ നാട്ടിൽ അതൊക്കെ ആഫ്രീക്കേനെ പറ്റിയിട്ടൊക്കെ ഉള്ള സഞ്ചാര സാഹിത്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം നമുക്ക് ആ കഥകൾ വായിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ആ സ്ഥലം കണ്ട പോലെയാണ് നമുക്ക് തോന്നുക ബാഗ്ദാദിന്റെ ഒക്കെ കഥകൾ വായിക്കുമ്പോൾ ഒക്കെ ചെറുപ്പം തൊട്ടേ എന്താണെന്നറിയില്ല വളരെയധികം ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ബുക്കുകൾ വായിക്കാനായിട്ട് വളരെയധികം നമുക്ക് സന്തോഷം തരും ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇത്തരത്തിൽ അന്നും ആളുകൾ സഞ്ചരിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്